കഴിഞ്ഞ ഏതാനം നാളുകളായിട്ട് ഒരുപാട് പുതിയ ജോലികൾ നമുക്ക് പുതിയ ജോബ് റോളുകൾ വന്നിട്ടുണ്ട് എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ മ്യൂസിക് ബാൻ്റ് സ്റ്റാൻ്റപ്പ് കൊമേഡിയൻ യൂട്യൂബ് കണ്ടൻ്റ് ക്രിയേറ്റർ സഞ്ചാരി അങ്ങനെ പല തരത്തിലുള്ള ജോബുകളും ശരിക്കും ഇന്ത്യയിലെ ചെറുപ്പക്കാർ ജീവിതത്തിൽ എന്തൊക്കെ എന്താ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ജോലി അതിനൊത്ത ഒരു ശമ്പളം അതാണ് എല്ലാ ഇന്ത്യയിലെ സാധാരണ പൗരന്മാർ ആഗ്രഹിക്കുന്ന കാര്യം എന്നാൽ ജോലി ഉണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള സാലറി ഇല്ലാത്തതാണ് ഇന്ത്യയിലെ പ്രശ്നം അങ്ങനെ വരുന്ന വരുമ്പോൾ ഒരു സാലറി അതിനനുസരിച്ച് കിട്ടാതാകുമ്പോൾ ആളുകൾ ഇവിടെ നിന്ന് പല പുറം രാജ്യങ്ങളിലേക്ക് പോവുകയും അവിടെ പോയി സെറ്റിലാവുകയും ചെയ്യുന്നു അവർ പഠിക്കാനായിട്ട് ഇവിടെ നിന്ന് പോകും അതിന് ശേഷം പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ ഫാമിലിയിനെ കൂടി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് കാരണം എന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ ഇവിടെ അതിനനുസരിച്ചുള്ള ജോലിയും സാലറിയും കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്

പക്ഷെ ഇവിടെ ആ ഒരു സിസ്റ്റം ഉണ്ടാവുന്നില്ല അത് ഉണ്ടാവാത്തതു കൊണ്ടാണ് പലരും ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ആകെ ആഗ്രഹിക്കുന്നത് അവരുടെ കുടുംബത്തോടൊത്ത് നിന്ന് അവരുടെ കൂടെത്തന്നെ നിന്ന് അവരെ അടുത്തുണ്ടായി ജോലിക്ക് പോയി സമ്പാദിച്ച് അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ് പക്ഷെ അത് നമുക്ക് സാധിക്കാണ്ട് പോവുകയാണ് ചില ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് ജോലി സ്ഥലത്ത് റെസ്പെക്ട് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ സാലറി അതിനനുസരിച്ച് കിട്ടാതിരിക്കുക നമ്മുടെ ജോബിനിണങ്ങിയ സാലറി കിട്ടാതിരിക്കുക ജീവിത ശൈലിയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഉണ്ടാവാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നനങ്ങളാണ് നമുക്കുണ്ടാവുക അപ്പോൾ ആ പ്രശ്നങ്ങൾ കാരണമാണ് ഒരുവിധം ഈ ഇന്ത്യയിലുള്ള ആളുകൾ മിക്കവരും ഇപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് പോയി അവിടെ പോയി സെറ്റിലാകുന്നതിൻ്റെ കാരണം അപ്പോൾ അവർക്ക് കുറച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള ജോബും സാലറിയും കിട്ടുമ്പോൾ അവരവിടെ സെറ്റിലായി അവർക്ക് പുതിയ പി ആർ കിട്ടിക്കഴിയണ സമയത്ത് അവർ ഫാമിലിയിനെ കൂടെ കൊണ്ടുപോകാമെന്ന് എന്തുകൊണ്ട് അവർക്ക് ഫാമിലിയുടെ കൂടെ നിൽക്കണം എന്നുള്ള ആ ഒരാഗ്രഹം കൊണ്ട് മാത്രമാണ് അവർ അവർക്ക് ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുളള ആഗ്രഹം കൊണ്ടാണ് അവർ ജോലിക്ക് വരുന്നത് തന്നെ അപ്പോൾ അത് അവിടെ സാധിക്കുന്നുള്ളതുകൊണ്ടാണ് അവർ ഇവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ പുതിയ ജോബ് റോളുകൾ വന്ന സ്ഥിതിക്ക് അത് വഴിയും രക്ഷപെടാൻ ശ്രമിക്കുന്നവരും ഉണ്ട് പക്ഷേ അതായാലും നമുക്ക് ഇന്ത്യയിൽ ആ ഒരു ജോബ് റോളിനൊന്നും അധികം സാലറിയൊന്നും കിട്ടുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നവും ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതലാവശ്യമായിട്ടുള്ളത് അവരുടെ ഫാമിലിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്